ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് പറയാനൊന്നുമില്ല എല്ലാ സിനിമകളും അടിപൊളിയാണ് സിനിമയിലെ സംഗീതങ്ങളും ഒക്കെ ഓക്കെയാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട സോങ്ങ്സ് ഒക്കെയായിരിക്കും കൂടുതലായിട്ടും എല്ലാം റിലേറ്റെഡ് ആയിരിക്കാം എല്ലാം അടിപൊളി ആണ് സിനിമയും സോങ്ങ്സും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നേയും ഏതൊക്കെത്തരം സിനിമകളാണ് കാണാറെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ അങ്ങനൊരു സിനിമായെന്ന് പറയാൻ ഒരിതില്ല എല്ലാ സിനിമയും കാണും പക്ഷേ കുറച്ച് കൂടുതലായിട്ട് ഇന്ററസ്റ്റ് ഉള്ളത് ഹൊറർ ഫിലിംസിലൊക്കെയാണ് ഹൊറർ ഫിലിംസ് ഒക്കെ കണ്ടാൽ പേടി ഉണ്ടെങ്കിലും ഞാൻ കൂടുതലും എനിക്ക് അതാണ് ഇഷ്ടം പിന്നെ സീരിയലൊന്നും കാണാറില്ല എനിക്കതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ കാണുന്നൊരു ആ ഒരിതിലാണ് എനിക്കതിൽ താല്പര്യം ഇല്ല കാരണം ഒരു റിലേറ്റെഡും അല്ലാത്ത കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണുന്ന ഒരു രീതിയിലുള്ള അതൊക്കെ തന്നെ ആണ് അതുകൊണ്ട് എനിക്ക് സീരിയലിനോടൊന്നും താല്പര്യമില്ല പിന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമിതയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമാഗാനം എന്നു പറയാൻ അങ്ങനെയൊന്നുമില്ല എന്നാലും മെലഡി സോങ്ങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ സോങ്ങ്സ് കേൾക്കുന്നൊരു കൂട്ടത്തിലുള്ളൊരാളാണ് എനിക്ക് സോങ്ങ്സ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് ബട്ട് ഇന്ന സോങ്ങ് എന്നൊന്നും എനിക്കില്ല ഏതു സോങ്ങ്സ് ആണെങ്കിലും ഞാൻ ഓക്കെ ആണ് പിന്നെ എനിക്ക് യേശുദാസിനെയാണ് കൂടുതലായിട്ട് ഇഷ്ടം ഗായകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പോഴും യേശുദാസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ പാട്ട് എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടതാണ് എല്ലാം അടിപൊളി ആണ്